ഞങ്ങളുടെ ഗ്രാമത്തിലെ പ്രധാന ആരാധന മൂർത്തി ശിവനാണ് ഒരു ശിവക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഗ്രാമം നിലനിൽക്കുന്നത് ശിവ ക്ഷേത്രത്തിലെ ആരാധനയിൽ പലതരത്തിലുള്ള രീതികളും ആചാരങ്ങളും ഉൾപ്പെടുന്നു

നമ്മൾ അമ്പലത്തിലേക്ക് കൂടുതലായും കൂവള മാല സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ശിവനായത് കൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് ശിവരാത്രിയാണ് ശിവരാത്രി ദിനത്തിൽ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ആളുകൾ ശിവരാത്രി വ്രതം നോൽക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമത്തിലെ അമ്പലത്തിൽ രാത്രി മുഴുവൻ പല പരിപാടികളും ഉണ്ടാകും കലാപരിപാടികളും നാടകവും അങ്ങനെ ആളുകളെ ഉറക്ക മൊഴിച്ചിരുത്താൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള പരിപാടികളാണ് അന്നേ ദിവസം ഉണ്ടാവുക എന്നാൽ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ ഇതിനെയെല്ലാം മാറ്റിമറിച്ച് കൊണ്ട് പല പരിപാടികളും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള പരിപാടികളുടെ ഭാഗമായി ഡി ജെ വരെ നടത്തുന്നു എന്നാൽ ശെരിക്കും ഈ ഗ്രാമത്തിലെ ആരാധനമൂർത്തിയുടെ ആചാരണങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ

ഈ ഗ്രാമത്തിലെ ആളുകൾ ശിവനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ അമ്പലത്തിൽ ഒരു ഒറ്റക്കൽ പ്രതിഷ്ടഠിയാണ് ഉള്ളത് അതുപോലെ തന്നെ ശിവ ഭഗവാൻ്റെ